നിയമപ്രകാരമുള്ള രേഖകളുണ്ടാക്കുന്നതിൽ അനുഭവംന്ന് വെച്ചഞ്ഞാൽ ഇപ്പോൾ എളുപ്പവും ഉണ്ട് അതു ചില രേഖകളുണ്ടാക്കുമ്പോൾ നല്ലതായരീതിയിൽ നമുക്ക് സമയ നഷ്ട്ടം വരികയും നമ്മൾ കുറെ ഓടുകയൊക്കെ ചെയ്യണ്ടി വരും അപ്പം പ്രധാനമായിട്ട് ഞാൻ ഒരുദാഹരണം പറയുകയാണെങ്കിൽ എൻറ്റൊരു സുഹൃത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പം അത് അവൻ്റെ മുത്തച്ഛൻ്റെ പേരിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് അപ്പം അതിന് അവരുടെ ഒരു മുത്തച്ഛനു മൊത്തോം പത്ത് മക്കളായിരുന്നു അപ്പം അപ്പം അവർടെ പുള്ളി മുത്തച്ഛൻ്റെ മക്കളും അവരുടെ കൊച്ചുമക്കൾക്കും കൂടെ എല്ലാവരുടെയും അവകാശപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് അപ്പം അത് എല്ലാവരുടെയും പേരിൽ തുല്യമായിട്ട് എഴുതി വെക്കാനുള്ള ഒരു കാര്യങ്ങൾ ചെ അവർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പം അതിൻ്റെ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസികളിലൊക്കെ ചെന്നപ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങൾ ചോദിയ്ക്കാൻ ചെന്നപ്പോൾ അവർ ഒരുപാട് രേഖകൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമേ തന്നെ മുത്തച്ചൻ്റെ ഈ പത്ത് മക്കൾ അവ അവരുടെ തന്നെ മക്കളാണ് തെളിയിക്കുന്ന സെർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ കൊച്ചു മക്കൾ അവരുടെ മക്കളാണ് കൊച്ചു മക്കൾ തന്നെയാണ് കല്യാണ സർട്ടിഫിക്കറ്റ് മാര്യേജ് സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ ആധാർ കാർഡ് റേഷൻ കാർഡ് അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇവരുടെ ബന്ധം ഇവരുടെ മുത്തച്ഛൻ്റെ മക്കൾ തന്നേയാന്നുള്ള തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ ഇവരുടെ കല്യാണം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും വേണം അതുപോലെ ഒത്തിരി രേഖകൾ വേണം മുദ്ര പത്രങ്ങൾ കുറെ വേണം ഏകദേശം ഒരു പത്ത് നുപ്പത് ആളുകൾ ളുടെ പേരിലോട്ട് മാറ്റെണ്ട ഒരു പ്രോപ്പർട്ടിയായിരുന്നു അപ്പം അതിന് ഒരുപാട് അതിൻ്റെ പുറകേ നടക്കുകയും ഒത്തിരി സമയം ഇതിനെ ഇതിൻ്റെ പുറകെ ചിലവാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇച്ചിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും ഇതിൻ്റെ പുറകേ നടക്കുക എന്നത് നമുക്ക് ഇച്ചിരി പാടുള്ള പരിപാടിയാണ് ഇപ്പം ഇപ്പെല്ലാവരും അങ്ങനെ നടക്കത്തില്ല ചില കുടുംബത്തിൽ ചിലവർ മാത്രം ആയിരുന്നു നടന്നത് എന്നാണ് സുഹൃത്ത് പറഞ്ഞത് അപ്പോൾ അതെന്ന് പറയുമ്പോൾ അപ്പോൾ ആദ്യമേ തന്നെ മുത്തച്ഛനിപ്പോൾ അങ്ങനെ പെട്ടന്ന് മുത്തച്ഛൻ്റെ ഈ ഒപ്പിൻ്റെ ആവശ്യങ്ങൾക്കും അങ്ങനെ ഇവിടെ മുത്തച്ഛന് വരാൻ പറ്റാ എല്ലാം വന്ന് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം അല്ല അങ്ങനെ അവിടെ പോയി ചെയ്യണ്ടതായിട്ട് ഉണ്ടായിരുന്നു മുത്തച്ഛനെങ്ങനെ ഒരു വയ്യാത്ത സ്ഥിതീലായിരുന്നു അപ്പം നമ്മൾ അതിൻറ്റേതായ ചെറിയ ചെറിയ ഒരു സമയ നഷ്ടം കൂടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം മുത്തച്ഛന് വയ്യാതെ കിടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അവിടെ ചെല്ലുകയും ഓരോ രേഖകൾ അവിടുന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുകയും വില്ലേജ് ഓഫീസി കൊടുക്കുകയും ഇവിടുന്ന് പറയുന്നത് തരുന്നത് പിന്നെയും മുത്തച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒപ്പിടീപ്പിക്കുക അതുപോലെ തന്നെ മുത്തച്ഛന് മക്കളാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ അതുപോലെ എല്ലാം തന്നെ നമ്മൾ ഇങ്ങനെ ഒരുപാട് സമയം നഷ്ടപ്പെട്ട് തന്നെയാണ് എടുത്തത് ഇപ്പം ചില സാഹചര്യങ്ങളിൽ ചെയ്ത് കഴിയുമ്പോൾ ചിലതൊക്കെ പറ്റത്തില്ല റിജെക്റ്റാകാൻ സാധ്യതയുണ്ട് അതക്കെ നമുക്ക് ഒരുപാട് പ്രയാസമുള്ളതാണ് അത് നമ്മുടെ അനുഭവമെന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രയസമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ വരുമ്പോളാണ് ഒരുപാട് പ്രയാസം ഇപ്പോൾ ഇതുപോലുള്ള ആധാര ഇങ്ങനുള്ള സീറ്റുവേഷൻസൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രയാസമുള്ള ഒരു രേഖ ഉണ്ടാക്കുന്നതിലേറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യമാണിത് ആധാരം ഉണ്ടാക്കുന്നത് കാരണം തലമുറകൾ പിന്നിട്ട് പോകുമ്പോൾ ഇപ്പോൾ മൂന്ന് തലമുറയുണ്ടെങ്കിൽ മൂന്ന് തലമുറയിലുള്ള ആൾക്കാർ രേഖകളും അതുപോലുള്ള അവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വേണ്ടി വരും അതക്കെ നമുക്ക് ഇച്ചിരി പ്രയാസവും സ അതൊക്കെ കിട്ടുകാന്നുള്ളത് പ്രയാസമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം പ്രോപ്പർട്ടീടെ മുന്നാധാരം അതൊക്കെ നഷ്ട്ടപ്പെട്ടു പോയിരുന്നതാണ് പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ടി വന്നു ഇപ്പോൾ ഒന്നാമത്തേത് മുത്തച്ഛന് വയ്യാതായും കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രയാസപ്പെട്ടത് അങ്ങനെ തന്നെ ഏറ്റവും പ്രയാസമുള്ള നിയമപരമായ രേഖകൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രയാസമുള്ളത് ഏറ്റവും പ്രയാസമുള്ളത്ന്ന് തോന്നീട്ടുള്ളത് ആധാരം അവരുടെ പേരിലോട്ട് ആക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പുറകേ നമ്മൾ ഒത്തിരി നടക്കേണ്ടി വരും ഏകദേശം ഒരു വർഷം അടുത്ത് അതിൻ്റെ പുറകേ നടന്നിട്ടാണ് എല്ലാം ഒന്ന് ശരിയായത് എന്നാണ് സുഹൃത്ത് പറഞ്ഞത് ഇപ്പോൾ ഇപ്പം നമുക്ക് മൂന്ന് തലമുറ ഉള്ള സ്ഥിതിക്ക് എല്ലാവരുടെയും രേഖ മുത്തച്ഛൻ്റെ മക്കൾ പത്ത് മക്കളായിരുന്നു അപ്പോൾ ആ പത്ത് മക്കളുടെയും മാര്യേജ് സർട്ടിഫിക്കറ്റ് മുത്തച്ഛൻ്റെ മാര്യേജ് സർട്ടിഫിക്കറ്റ് മുത്തച്ഛൻ്റെ മക്കളാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ആധാർ വരുമാന സർട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ആധാർകാർഡ് റേഷൻ കാർഡ് അതുപോലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും വേണം അത് കൂടാതെ തന്നെ മുത്തച്ഛൻ്റെ മക്കൾ തന്നെയാന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പിന്നെ ഈ മക്കൾടെ മക്കൾടെ മക്കൾടെ മക്കൾടെ സർട്ടിഫിക്കറ്റുകൾ വരെ ഇതിനകുംത്ത് വരേണ്ടിയിരുന്ന ഒരു അവസ്ഥേലായിരുന്നു അപ്പം അതിനൊക്കെ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുകയും പുറകേ നടക്കുകയും ചെയ്യണം ഇപ്പം കഷ്ട്ട നമ്മൾ പുറകേ നടക്കുമ്പോൾ പ്രയാസമുള്ളതാണോന്ന് ചോദിച്ചാൽ പ്രയാസമുള്ളത് തന്നെയാണ് പക്ഷേ ലഭിക്കാൻ വേണ്ടി നമ്മളൊത്തിരി നടക്കും ഇതിപ്പം ലഭിക്കാനെന്താണ് ചെയ്യണ്ടേന്ന് ചോദിക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ ഇതിൻ്റെ പുറകേ തുനിഞ്ഞിറങ്ങണം അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് എല്ലാ ഇപ്പം കിട്ടണമെന്നില്ല എന്നാലും നമ്മൾ ഇതിൻ്റെ പുറകേ തുനിഞ്ഞിറങ്ങണം എന്നാലേ ഉള്ളു ഇത് ലഭിക്കുകയുള്ളൂ നമുക്ക് ചെയ്യണ്ട കാര്യങ്ങളൊക്കെ ചെയ്താലേ ഇത് ലഭിക്കുകയുള്ളു ഇതിന് കിട്ടാൻ പ്രയാസോള്ളതൊന്ന് ആധാരം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റക്കെ പെട്ടെന്നുള്ള ഇതിൽ നമുക്ക് കിട്ടാനൊരു കുറച്ച് താമസമെങ്കിലും എടുക്കും നമുക്ക് ഈ സർക്കാർ നിയമപരമായിട്ടൊള്ള രേഖകളൊക്കെ ഉണ്ടാക്കുന്നതിൽ എപ്പോഴും കുറച്ച് താമസം എടുക്കുന്നത് സർവ്വസാധാരമാണ് ഇപ്പം ഞാനൊരു ഉദാഹരണമാണ് മുത്തച്ഛൻ്റെ മറ്റേ സുഹൃത്തിൻ്റെ മുത്തച്ഛൻ്റെ കാര്യം പറഞ്ഞത് അതുപോലെ തന്നെയാണ് എല്ലാവരും ഓരോരുത്തർക്കും ഓരോ രേഖകളുണ്ടാക്കുമ്പോളും അതിൻറ്റേതായിട്ടുള്ള സമയനഷ്ടവും അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ സമയം നഷ്ടോണ്ടാകാറുണ്ട് പിന്നെ ഒത്തിരി നമ്മളിതിൻ്റെ പുറകേ നടക്കണം കുറെ സർട്ടിഫിക്കറ്റ് നമുക്ക് കയ്യിലില്ലാതെ വരും പിന്നെ അതും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നടക്കണം ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരാധാരം അല്ല ഇപ്പോരു കരം ഇപ്പോരു വരുമാന സർട്ടിഫിക്കറ്റ് നമ്മളൊരു വില്ലേജ് ഓഫീസിൽ ചെല്ലുകയാണ് അപ്പവിടെ ചെല്ലുമ്പോൾ നമ്മളോട് പറയും ഇപ്പ കരമടച്ച രസീത് കൊണ്ട് വരാൻ ഇപ്പം ചെല്ല് എടുക്കാൻ പോകുന്ന ആൾക്ക് കരമടച്ച രസീത് ഇല്ലാത്ത ഒരു അവസ്ഥ വരുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കരമടച്ച രസീതിനു ഉണ്ടാക്കാൻ വേണ്ടി വേറെ രേഖകൾ കൊടുക്കണ്ട ഒരു സ്ഥിതി വരുന്നുണ്ട് അപ്പങ്ങനുള്ള സാഹചര്യങ്ങളിൽ ഇപ്പം കരമടച്ച രസീത് ഉണ്ടാക്കാണോങ്കിൽ നമ്മളങ്ങനെ കുറച്ച് നാളു കൂടെ അത് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യം നമുക്ക് വരുന്നുണ്ട് അങ്ങനുള്ള സന്ദർഭങ്ങളിൽ ഈ രേഖകളുണ്ടാക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എളുപ്പമായിട്ടുള്ള കാര്യമല്ല നമ്മളിതിൻ്റെ പുറകേ നടക്കുവാണെങ്കിൽ ഇത് ലഭിക്കും ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് എന്നത് മാത്രമാണ് പറയാനുള്ളത്